ഇന്ന് ഇന്ത്യയിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിക പ്രശ്നങ്ങൾ നദിയിലും നദികൾ ചുരുങ്ങുന്നു കാടുകൾ കുറേ കത്തി തീരുന്നു മലകളെല്ലാം കുന്ന് നികത്തി അതിൽ ബിൽഡിങ് വെക്കുന്നു കടലുകൾ വറ്റി തീരുന്നു കൃഷിയിടങ്ങളിൽ വെള്ളമില്ല വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കൃഷിയിടങ്ങൾ തരിശ് ഭൂമിയിലേക്ക് മാറുന്നു മണ്ണിന് മണ്ണ് മാറുന്നു മണ്ണിനിപ്പോൾ കൃഷിയിടങ്ങളേ താങ്ങാൻ പറ്റുന്നില്ല താങ്ങി നിർത്താനുള്ള ശേഷി മണ്ണിന് കുറയുന്നു കാലാവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പഴയ പോലത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ വേനലിന് ഭയങ്കര ചൂട് മഴയാണെങ്കിൽ കിട്ടുന്നുമില്ല ശീതകാലമേ കാണാനില്ല മഴ ഇല്ലാത്തത് കൊണ്ട് തന്നേ കൃഷിയിടങ്ങൾ വളരേ കഷ്ടത്തിലാണ് നദികൾ കാടുകൾ പ്രകൃതി എല്ലാം നശിച്ച് കൊണ്ടിരിക്കുന്നു വളരെയധികം മാറ്റമാണ് ഈ സംഭവിക്കുന്നത്